ഹലോ അനിരു ഹലോ കേൾക്കാമോ അനിരുദ്ധ് ഡോക്ടർ അല്ലേ ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന തലവേദന തൊണ്ടവേദന എന്താണെന്നറിയില്ല അയ്യോ വല്ലാത്ത ഒരു അസ്വസ്ഥത എന്താണ് ചെയ്യുക ഇപ്പോൾ രണ്ടു മൂന്നു ദിവസമായി ഡോക്ടറെ എന്താണ് ചെയ്യുക എന്നറിയില്ല ഞാൻ ലാസ്റ്റ് ഗോബി മഞ്ചൂരിയൻ ആണെന്നു തോന്നുന്നു കഴിച്ചത് അല്ല അല്ല പുറത്തു നിന്നാണ് കഴിച്ചത് അത് കൃത്യമായിട്ട് ഓർമയില്ല പുതിയതാണെന്നു തോന്നുന്നു ഹോട്ടലിൻ്റെ പേര് അങ്ങനെ കൃത്യമായിട്ട് ഓർമയില്ല ഫുഡ് പോയ്സൺ ആണോ ഡോക്ടറെ അവിടുത്തെ ഫുഡൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല ക്ളീൻ ആക്കിയിട്ടാണല്ലോ തരുന്നത് അങ്ങനെയാണ് കണ്ടത് അറിയില്ല ആ അപ്പോൾ ഇനി എന്താണ് ചെയ്യുക അത് എത്ര ദിവസം വയറുവേദന തൊണ്ടവേദന പിന്നെ ജലദോഷം ഇങ്ങനെ ഇങ്ങനെ കുറേ ആ അതും ഉണ്ട് എത്ര എത്ര ദിവസം കൊണ്ട് അത് കഴിയും ഓക്കേ ആഹാ

ഓക്കെ ഡോക്ടർ താങ്ക് ആ ഓക്കെ ഡോക്ടർ താങ്ക് യു ആ ശരി കേട്ടോ അതെ അതെ ശരി ശരി ഓക്കെ ഡോക്ടർ താങ്ക് യു ഓക്കെ ആ